ഹലോ ഹലോ ഇത് തൃപ്തി ചായപ്പൊടിയുടെ ഓഫീസ് അല്ലേ ആ എൻ്റെ പേര് ഷിംന എന്നാണ് ഞാൻ എൻ്റെ പേര് ഷിംന എന്നാണ് ഞാൻ ചായ ചായപ്പൊടിയുടെ ഏജൻ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആണ് എനിക്ക് ഒന്ന് മുതലാളിയോട് ഒന്ന് സംസാരിക്കണമായിരുന്നു ആ ആ ആ ആ മാഡത്തിൻ്റെ പേര് എന്താ ഓ മാഡത്തിൻ്റെ പേര് തന്നെയാണ് കമ്പനിയുടെയും പേര് അല്ലേ ആ ഹാ ഹാ ആ മാഡം ഞാൻ ചായ ഞാൻ ചായ ഞാൻ ചായപ്പൊടിയുടെ ഏജൻ്റായിട്ട് ജോലി ചെയ്യുന്ന ആണ് അപ്പോൾ എനിക്ക് എൻ്റെ വേൾഡ് വ്യാപാരം ഈ കേരളം മൊത്തത്തിൽ ആക്കണം എന്ന് ഒര് ആഗ്രഹം ഉണ്ട് അപ്പോൾ കമ്പനി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആയിരുന്നു അപ്പോൾ മാഡത്തിൻ്റെ ചായപ്പൊടി വച്ചിട്ട് എനിക്ക് റീട്ടെയിൽ ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു ആ ആ അപ്പോൾ ഇത് എനിക്ക് എത്ര രൂപയ്ക്ക് കിട്ടും ഇത് ഞാൻ മാഡത്തിൻ്റെ അടുത്തു നിന്ന് എടുക്കുകയാണെങ്കിൽ ആ ആ ആ അല്ല ഈ ഒരു ബോക്സിൽ എത്ര എണ്ണം ഉണ്ടാവും ഇരുപത് പീസാണോ ഓക്കെ ഒരു ബോക്സിന് എത്ര രൂപയാണ് വരിക ആയിരം വരും അല്ലേ ആ ഹാ ഹാ അല്ല ഞാൻ എനിക്കിപ്പം എനിക്ക് ഇപ്പം ഒരു ഏജെൻ്റ് എന്ന നിലയ്ക്ക് തരികയാണെങ്കിൽ എത്രയ്ക്ക് തരാൻ പറ്റും ആ ഞാൻ കേരളം മൊത്തത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അപ്പം എനിക്ക് കുറെ ലോഡ് വേണ്ടി വരും ആ ആ അതേ അല്ലേ ആ ആ ആ ആ ആ ഓക്കേ ആ അപ്പോൾ ഞാൻ നേരിട്ട് എന്തായാലും വരാം നേരിട്ട് വന്ന് സംസാരിക്കാം ഒന്ന് കാണാൻ പറ്റില്ലേ നേരിട്ട് വന്നാൽ നാളെ നാളെ ഒരു പത്ത് മണി ആവുമ്പോൾ ഞാൻ ഓഫീസിൽ എത്താം വയനാട്ടിൽ അല്ലേ ഇതിൻ്റെ ഓഫീസ് ആ ഞാൻ പത്ത് മണി ആവുമ്പോൾ എത്താം ആ മാഡം അവിടെ ഉണ്ടാകുമല്ലോ അല്ലേ ആ ആ ആ ആ എന്നാൽ ശരി മാഡം ശരി